ഞാൻ ചിത്രം വരയ്ക്കുമ്പോൾ ഒരു വൈറ്റ് പേപ്പറ് അതുപോലെ ഒരു പെൻസില് അതുപോലെ ഒരു റബ്ബറ് ഈ മൂന്നെണ്ണമാണ് അതുപോലെ നല്ല കട്ടറുകൊണ്ട് നന്നായിട്ട് കൂർമിച്ച പെൻസിലുകൊണ്ടാണ് വരയ്ക്കാറ് അത് ഷെയ്ഡ് കൊടുക്കുമ്പോഴൊക്കെ അതാണ് ബെറ്ററ് പിന്നെ പെൻസിലെന്ന് പറയുമ്പോൾ ഒരുപാട് പെൻസിലുണ്ട് കട്ടി കൂടിയതും അതുപോലെ വരയ്ക്കുമ്പോൾ ചെറുതായിട്ട് കാണുന്നതും അതുപോലുള്ള ഒരുപാട് പെൻസിൽ എച്ച് ബി എന്ന് പറയുന്ന ഒരുപാട് പെൻസിലുകളുണ്ട് അങ്ങനെ ഒരുപാട് പെൻസിലുകളുണ്ടാവും അതു വച്ചിട്ട് അത് വച്ചിട്ടാണ് ഞാൻ വരയ്ക്കാറ് പിന്നെ ചിത്രം വരച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കാവശ്യമായ പെയിന്റ് കളറിംഗ് കളറ് കൊടുക്കാറുണ്ട് ഞാൻ പിന്നെ ഞാൻ കൂടുതലും നോക്കിയിട്ടാണ് വരയ്ക്കാറ് അത് യൂട്യൂബിലൊക്കെ നോക്കി അതിലുള്ള ചിത്രങ്ങളാണ് വരയ്ക്കാറ് പിന്നെ അതുപോലെ നോട്ട്ബുക്കിന്റെ പുറകിലൊക്കെ ഒരുപാട് നന്നായി നല്ല ചിത്രങ്ങളൊക്കെ ഉണ്ടായിന് പെൺകുട്ടികൾ തിരിഞ്ഞു നിൽക്കുന്നത് അതുപോലെ ചിത്രശലഭങ്ങൾ അതൊക്കെ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടാവില്ലേ അത് നോക്കിയിട്ടാണ് ഞാൻ കൂടുതൽ വരയ്ക്കാറ് അതുപോലെ നോക്കി ആദ്യം ഞാൻ പഠിക്കാൻ ഒന്നും പോയിട്ടില്ല അതുപോലെ യുട്യൂബിലെ ആരാണ് വരയ്ക്കുന്നത് അതുപോലെ നോക്കി പഠിച്ച് അങ്ങനെയാണ് ഞാൻ വരയ്ക്കാറ് അതുപോലെ വരച്ച ചിത്രത്തിന് പിന്നിലെ പ്രക്രിയയെന്ന് പറയുമ്പോൾ അതുപോലെ നോക്കി ഒരു ഒരു വൈറ്റ് പേപ്പറിൽ പെൻസലുകൊണ്ട് വരച്ച് തെറ്റിപ്പോയാലും മായ്ക്കും അതിനു ശേഷം ഒരു സ്കെച്ച് ബ്ലാക്ക് കളർ സ്കെച്ച് കൊണ്ട് വരയ്ക്കും പിന്നെ നമുക്ക് സ്കെച്ചുകൊണ്ട് വരച്ച് ഷേയ്ഡിങ്ങ് ഒക്കെ കൊടുക്കണമെങ്കിൽ അതും കൊടുത്ത് പിന്നീട് കളറ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്